ഇതാരാണ് ഇത് ആ കോട്ടയം ഫൈനാൻസ് ആണ് ഓ അതെ ഇവിടെ ഗോൾഡ് ലോൺ മാത്രമേ ഉള്ളൂ ഗോൾ പ്ലഗ് ഗോൾഡ് പ്ലഗ് ചെയ്തിട്ട് നമ്മൾ ലോൺ തരും ഒരു ഗ്രാമിന് ഇത്ര രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം ആ ഒരു ഒരു ഗ്രാമിന് അയ്യായിരം രൂപ വെച്ച് തരും നമ്മൾ ആ അത് ഹാൾമാർക്ക് പ്രൊസീജിയർ ഒക്കെ ഇവിടെ വളരെ സിംപിള് ആണ് ഈസിയായിട്ട് ഒക്കെ പോവും അത് അതും നമ്മളെ ഒരു ഐ ഡി പ്രൂഫ് വേണം ആ ഐ ഡി പ്രൂഫും ഇത് ഗോൾഡ് വന്നിട്ട് ഹാൾമാർക്ക് ഉള്ളതാണെങ്കില് അത് പൈസ കൂടുതൽ കിട്ടും അത് അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറൊക്കെയായിരിക്കും ചിലപ്പം ഗ്രാമിന് ഒരു പവനല്ല ഒരു ഗ്രാമിന് അത് അയ്യായിരം രൂപയ്ക്കകത്താണ് ഇത് ചെയ്യാൻ അയ്യായിരം വച്ച് കൊടുത്ത് നോക്ക് അപ്പോൾ എടുത്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് നഷ്ടപ്പെടുമല്ലോ അയ്യായിരം വെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കൂടുതൽ കിട്ടണമെങ്കിൽ പലിശ കൂടും പിന്നെ ഒന്ന് ഒന്നും ഇല്ല ഐ ഡി പ്രൂഫും ഗോൾഡും കൂടെ കൊണ്ട് വന്ന് കഴിഞ്ഞേനെ കൊണ്ട് അഞ്ച് മിനിറ്റകത്ത് പൈസ കിട്ടും ഓ അറുപത് അറുപത് അറുപത് അറുപത് ദിവസം വരെ ഒരു പലിശയായിരിക്കും അറുപത് ദിവസം വരെ പിന്നെ പലിശ അടച്ചില്ലെങ്കിൽ പലിശ കൂടും അങ്ങനെ ഒരു കൊല്ലം ആണ് ഒരു കൊല്ലത്തിനകത്ത് ഇട്ടിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ലേലം ചെയ്യും

ഇതിന് വന്നിട്ട് പതിനാല് ശതമാനം അതല്ലല്ലോ ബാങ്കിൽ അല്ലേ നമ്മളതിൽ പതിനാല് ശതമാനത്തിന് അല്ലെങ്കിൽ പിന്നെ ഇത് വരും അല്ലെങ്കിൽ പലിശ കുറയുകയാണെങ്കിൽ എമൗണ്ട് കുറയും നിങ്ങൾക്ക് പിന്നെ ആറ് ശതമാനത്തിന് തരാം പക്ഷെ പക്ഷെ മുവ്വായിരം രൂപ വച്ചേ കിട്ടൂള്ളൂ ഗ്രാമിന് അങ്ങനെയല്ല അതാത് മാസം വെച്ചാണ് അടക്കുന്നത് ആറ് ശതമാനത്തിന് കിട്ടും അത് ഗ്രാമിന് മുവ്വായിരം രൂപ വെച്ചേ കിട്ടുള്ളൂ ഓ ഒരു കൊല്ലത്തിനകത്ത് പിന്നെ ആ ആ ഈ പലിശ ഒന്ന് രണ്ട് മാസം എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ അടക്കും രണ്ട് മാസം വരെ പലിശ അടച്ചില്ലെങ്കിൽ മൂന്നാമത്തെ മാസം പലിശ കൂടും അങ്ങനെ അഞ്ച് മാസം വരെ പലിശ അടച്ചില്ലെങ്കിൽ അഞ്ചാമത്തെ മാസം പലിശ കൂടും അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ചാൽ സ്വർണ്ണം കൂടുതലുണ്ടെങ്കിൽ വയ്ക്കുന്നതാണ് നല്ലത് ആറ് ആറ് ശതമാനം പലിശക്ക് കിട്ടും ആ ഇവിടെ ആഫീസ് സ്റ്റാഫ് ഉണ്ട് രാവിലെ ഒമ്പത് മണിക്ക് തുറക്കും വൈകുന്നേരം ആറ് മണി വരെ കാണും ഓ ഓ ഓ ഓ ആ ആ ശരി ശരി അപ്പോൾ സ്ഥലം അറിയാമല്ലോ എവിടെയാണ് ഫൈനാൻസിൻ്റെ എന്ന് മരുതൻകുഴി ആ മരുതൻകുഴി ജംഗ്ഷൻ മരുതൻകുഴി മരുത ജംഗ്ഷൻന്ന് അമ്പലത്തിലേക്ക് പോവുന്ന വഴിക്ക് നോക്കിയാൽ മതി കോട്ടയം ഫൈനാൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ ശരി